ജനവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഫെബ്രുവരി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഡിസംബർ നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഡിസംബർ എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ്